ഞങ്ങൾ ഈ സാധാരണ വീശുവല എന്നുപറയുന്നൊരു സാധനമുണ്ട് അത് വീശുവല വീശും അത് വീശിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അതിനകത്ത് ചെറിയൊരു മീനുകളൊക്കെ കിട്ടും പിന്നെ ഉടക്ക് വലയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉടക്ക് വലയുണ്ട് അതുവലിച്ചു കെട്ടിക്കഴിഞ്ഞാല് മുഴുത്ത മീൻ വരാൽ കാരി അങ്ങനത്തെയുള്ള മീനുകൾ ചെമ്പല്ലികളൊക്കെ അത് തോര്ത്തുടക്കിക്കിടക്കും അതു ഞങ്ങൾ വൈകിയിട്ട് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു നാല് നാലര ഒക്കെ ആകുമ്പം വെളുപ്പിനെ വെളുപ്പിനെ ഒരു നാല് നാലരയൊക്കെ ആവുമ്പം അതിങ്ങനെ വള്ളത്തിൽപ്പോയി വലിച്ച് അത് ഉടക്കി എടുത്ത് അതിനെയെല്ലാം എടുത്ത് ചിലത് ചത്തുപോകും ചിലത് ജീവന് കാണുമായിരിക്കും അങ്ങനെയാണ് പിടിക്കുന്നത് സാധാരണ ഈ വലയുപയോഗിച്ച് പിടിക്കും പിന്നെ ചൂണ്ട ഉപയോഗിച്ചു പിടിക്കും ചൂണ്ട നിരത്തി നമ്മൾ സാധാരണ ചൂണ്ട വലിയ മീനിനെ പിടിക്കാൻ വരാൽ പോലെ അല്ലെങ്കിൽ വലിയ വലിയ മീൻ ചെറുമീൻ അങ്ങനെ ഉള്ളതിനെയൊക്കെ പിടിക്കാനായിട്ട് ചൂണ്ട കുത്തി എറിഞ്ഞ് അവിടെയിടും പിന്നെ ഇപ്പം കൂടതൽ ചെയ്യുന്നതിനാണെന്നു വച്ചാൽ ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത കണ്ടിട്ടുണ്ട് മിഷന് ചൂണ്ടയെന്ന് പറയുന്ന സാധനമുണ്ട് അതിങ്ങനെ ഒറ്റയേറെറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അതിനകത്തൊരു ലൈറ്റ് വെട്ടമുണ്ട് ആ ലൈറ്റ് വെട്ടം ആ ചൂണ്ടയിൽ ആ ലൈറ്റ് വെട്ടത്തിന് വന്ന് മീൻ കൊത്തും കൊത്തിക്കഴിയുമ്പം വലിക്കുമ്പോഴത്തേക്ക് അതെ മീനതിൽക്കിട്ടും അത് മുഴുത്ത മീനൊക്കെക്കിട്ടും വാള അങ്ങനത്തെ ഉള്ളതൊക്കെ കിട്ടും നെയ്മ്മീനെ ഞാൻ കടലിലെ കാര്യമല്ല പറയുന്നത് കൂടുതലും ആറുകളില് നിന്നും തോടുകളില് നിന്നുമൊക്കെ പിടിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കടലിലെ മീനിനെ പിടിക്കുന്നതിനെപ്പറ്റി വലിയ വലകളും കാര്യങ്ങളുമൊക്കെയാണല്ലൊ അതിനെപ്പറ്റി നമ്മൾ നമ്മൾക്ക് നല്ല ഇത് ഇല്ല എന്നിരിന്നാലും ഞങ്ങൾ സാധാരണ ഇവിടെപ്പിടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ചൂണ്ടയിടും അത് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂണ്ടയിലെ സാമാന്യം സാമാന്യം മീൻ കിട്ടും ചൂണ്ട ഇട്ടു കഴിഞ്ഞാൽ ഒരാൾ ഒരു ചൂണ്ട കോര്ത്ത് അതെ മീൻ തീറ്റ കോര്ത്ത് ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു പൊങ്ങ പോലെ സാധനമുണ്ട് അതിങ്ങനെ പൊങ്ങിക്കിടക്കും അപ്പം മീന് വന്ന് കൊത്തുമ്പോഴത്തേക്ക് അത് ഒരു അനക്കം കിട്ടും അനക്കം കിട്ടുമ്പോഴത്തേക്കും വലിക്കും വലിക്കുമ്പോഴത്തേക്ക് അതില് മീന് ഉടക്കിക്കിട്ടും അങ്ങനെയെടുക്കും പിന്നെതുപോലെ തന്നെ വല ഉപയോഗിച്ച് വീശും പിന്നെ ഈ ഉടക്ക് വലയെന്നു പറഞ്ഞ സാധനം ഇടും ഇങ്ങനെ മൂന്ന് സമ്പ്രദായം ഉപയോഗിച്ചാൽ ഞങ്ങൾ ഇവിടെ കൂടുതലും മീൻ ഉപയോഗിക്കുന്നത് മീന് പിടിക്കുന്നത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമുക്ക് വീണ്ടും നമുക്ക് മുഴുത്ത മീനുകളെ പിടിക്കത്തുള്ളു കുഞ്ഞു മീനുകളെയൊക്കെ ഞങ്ങൾ തള്ളി തോട്ടില് കളയും വലകൊണ്ട് വീശി കളഞ്ഞ് കളഞ്ഞാലും വീശി എടുക്കുമ്പോഴത്തേക്ക് മീന് വരും അപ്പം അതിനകത്തു നിന്ന് ആ മുഴുത്ത മീനുകളെടുത്തുകൊണ്ട് ബാക്കി ഈ പൊടി വളർന്നു വരാനുള്ളതിനെയൊക്കെ എടുത്ത് തിരിച്ച് തോട്ടിലോട്ടങ്ങിട്ടേക്കും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഉള്ളെതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ മീനിനെ നമ്മൾ ഉടക്കുവലയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഉടക്കുവലയ്ക്ക് നമ്മൾക്ക് വൈകിട്ടൊരു ആറുമണി ഒക്കെ ആകുമ്പോൾ ഇട്ടുകഴിഞ്ഞാല് ഒരു പിന്നെ നാലരവരെ ആ നാല് നാലര ആകുമ്പോഴത്തേക്കെടുക്കും കാരണം മീന് ചത്തുപോവും കൂടുതൽ ചാകാതിരിക്കാനായിട്ടും വിൽപ്പനയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കില് അല്പം ജീവന് വേണമല്ലൊ അല്ലെങ്കിൽ ഇത് ചീഞ്ഞുപോകും കാരണം എന്നാൽ ഇപ്പോൾ ഒരിടത്ത് ഈ ചീഞ്ഞുപോവും അതിൽ ഈ ചെകിളയാണ് ഉടക്കുന്നത് ആ തിരയുടെ ഇപ്പുറത്ത് അപ്പുറത്ത് വെള്ളം പിടിച്ച് വെള്ളം പുറത്തോട്ടുവിടുന്ന ഒരു സാധനമുണ്ട് അത് ഉടക്കും അത് ഉടക്കിയാൽ ആ മീനവിടെ കിടക്കുന്നത് അപ്പോൾ അത് പിന്നെ മീനിനെ ഉപയോഗിച്ച് നമ്മൾ ഈ മൂന്ന് നാലുപയോഗം കാര്യങ്ങളുകൊണ്ടാണ് ഈ മൂന്നാല് കാര്യം മാര്ഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മീനിനെപ്പിടിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വളര്ത്തുന്ന മീനുകളെ സംമ്പന്ധിച്ചെടുത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഈ ചെറിയ വലകളുണ്ട് അത് ചെറിയ വല ഇങ്ങനെ വെള്ളത്തിലോട്ട് താഴ്ത്തിയിട്ടേക്കും അതിനകത്തോട്ടുകയറി മുക്കിയെടുക്കാം അപ്പം നമുക്ക് കറിക്കുള്ള മീനുകൾ കിട്ടും ഒരു അത്രയുള്ള ആവശ്യമേ ഉള്ളു അങ്ങനെയുള്ള സംവിധാനങ്ങളുമുണ്ട് അതുണ്ട്